ഒമ്പതിനായിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് നാൽപ്പത്തി ഓരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് അമ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ്